എനിക്കൊരു ക്യാമറ വാങ്ങിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചായിരുന്നു അപ്പം അതിൽ രണ്ട് മോഡല്കളിലേക്ക് ഞാനെന്റെ ചോയ്സ്സ് കൊണ്ടു വന്നിരിയ്ക്കയാണ് എനിക്ക് ഇതോ മറ്റെതൊ എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ മോഡലിന്റെ എന്തുവാണ് അതിന്റെ ചിത്രത്തിന്റെ വ്യക്തതയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരിക്കുന്നെന്ന് അതിന്റെ പ്രൊഡക്റ്റ് വെച്ച് അതായത് അതിന്റെ ഗുണം നല്ലതാണെന്ന് തോന്നുന്നു പക്ഷേ എന്നാൽ അതിന് അത്ര ദീർഘമായിട്ടുള്ള ലൈഫ് ഉണ്ടാകുമോ എന്നുള്ളത് അത്ര തീർച്ചയാകുന്നില്ല രണ്ടാമത്തത്തിനും വില അല്പം കൂടീരിക്കുന്നു പിന്നെ ആദ്യത്തേതിന് വില അല്പം കുറവായിരുന്നു ഒരു രണ്ടായിരം മുവായിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് രണ്ടാമത്തെ ഐറ്റത്തിന് ഒരു മുവായിരം രൂപ കൂടിയൊ കൂടുതലുണ്ട് ചിത്രത്തിന് ഗുണനിലവാരം ഉണ്ട് പക്ഷേ പണവും ഒരുമിച്ച് കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടെ അവർ സാധനം ഡെലിവറി ചെയ്യത്തൊള്ളു